ഈ മാസം ഒരൂ ഒരു വെക്കേഷന് ഒരു നാട്ടിലേക്കൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോള് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇവിടം മദ്രാസ് റെയിൽവേ സ്റ്റേഷനീന്നാണ് കയറുന്നത് ഏ സീ കംമ്പാർട്ട്മെൻറ്റാണ് ഉദ്ദേശിക്കുന്നത് ഏ സി ആണ് ഉദ്ദേശിക്കുന്നെ വൈകുന്നേ അന്നത്തെ ട്രെയിനിൻ്റെ അതനുസരിച്ച് യൂസർ ഐ ഡിയും പാസ്വേഡും പറഞ്ഞുതരാം അതിനനുസരിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യണം